ഫ്രം അജിത് ബാബു കുഞ്ഞുപറമ്പിൽ തുടിയംകോണം അമ്പൂരി പി ഒ

ദ മാലിന്യ കേരള ഗവൺമെൻറ് മാലിന്യ മാലിന്യ ബഹുമാനപ്പെട്ട സാർ നമ്മുടെ പഞ്ചായത്തിൻ്റെ വേസ്റ്റ് സംസ്കരിക്കുന്ന ചവറ്റുകുട്ട അതിൻ്റെ ശോചനീയാവസ്ഥയിലാണ് നിലനിൽക്കുന്നത് അപ്പം അതിനെ അതിൽ നിന്നും എന്താണ് മാലിന്യങ്ങൾ പുറംതള്ളി വലിയ രീതിയിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിൽ നിക്ഷേപിക്കുന്ന വേസ്റ്റ് മാലിന്യങ്ങൾ പുറംതള്ളി പട്ടിയും കാക്കയും എല്ലാം വലിച്ച് കീറി ഇവിടെ എല്ലാം അലങ്കോലമാക്കുകയും വൃത്തികരമാക്കുകയും വളരെ ദുർഗന്ധം വമിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ചവറ്റുകുട്ട ഈ മാലിന്യ സംസ്കരണം അതിന് വേണ്ടി എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ബിന്നിൻ്റെ അടിഭാഗം ഫുൾ പോയി അപ്പം ഈ മാലിന്യം വീഴുന്നതിലൂടെ അതിൽ വരുന്ന വേസ്റ്റുകളെല്ലാം പട്ടിയും പൂച്ചയും എല്ലാം വലിച്ച് കീറി നമ്മുടെ പഞ്ചായത്തിൻ്റെ മുഴുവനും സ്ഥലങ്ങളിലും ഇട്ട് അതിനെ വെറും വൃത്തികേടാക്കി അതിൻ്റെ കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനായിട്ട് ഈ കേടുപാടായ ബിൻ ഇവിടെ നിന്നും മാറ്റി നല്ലൊരു ബിൻ നല്ലൊരു ചവറ്റുകുട്ട നല്ലൊരു സംസ്കരണം എത്തിക്കുന്നതായിട്ടുള്ള അപേക്ഷ ഞാൻ സമർപ്പിക്കുകയാണ് ഇത് ഒരുപാട് പേർ ഇതിന് വേണ്ടി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് അതിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യപ്രശ്നങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഈ മാലിന്യ സംസ്കരണം നടന്നുകൊണ്ടിരിക്കുന്നത് പല രീതിയിലുള്ള വേസ്റ്റുകൾ ഹോട്ടൽ വേസ്റ്റുകൾ എന്താണ് പറയുക വീട്ടിലെ വേസ്റ്റുകളെല്ലാം ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഈ ബിൻ നമുക്ക് സംരക്ഷിച്ചില്ല എങ്കിൽ വളരെ ഏറെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ പ്രശ്നങ്ങളൊട്ട് ഒരുപാട് നമുക്ക് ഇപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി അനുസരിച്ച് ചെറിയൊരു മഴ നനഞ്ഞാൽ പോലും പെട്ടെന്ന് തന്നെ ആരോഗ്യം നഷ്ടപെടുകയാണ് അപ്പം അതിനുള്ള സാഹചര്യങ്ങൾ വരുത്താതെ ഇപ്പം മാലിന്യ സംസ്കരണം അത് നല്ല രീതിയിൽ നടന്നില്ല എങ്കിൽ അത് വളരെ ഏറെ ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ നല്ലൊരു മാലിന്യ സംസ്കരണം എന്താണ് പുറത്തോട്ട് പിന്നെ ദുർഗന്ധം വമിക്കാത്ത രീതിയിലും വേസ്റ്റുകൾ പട്ടിയോ കാക്കയോ ഒന്നും വലിച്ചുകൊണ്ട് പോകാതിരിക്കാനുള്ള സാഹചര്യത്തിൽ നല്ലൊരു ബിൻ നമുക്ക് ഇവിടെ പഞ്ചായത്തിൽ സ്ഥാപിച്ച് തരണമെന്ന് ഏറ്റവും താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു എന്ന് അജിത് ബാബു കുഞ്ഞുപറമ്പിൽ തുടിയംകോണം അമ്പൂരി പി ഒ